ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂളിലെ വിഭവങ്ങളുടെ കുറവ് മൂലം വെല്ലുവിളി നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല കാരണം അതിന് സർക്കാർ സ്കൂളുകളിലാണ് ഞങ്ങള് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് സർക്കാർ തന്നെ മുന്നിട്ട് ചെയ്തുതന്നിട്ടുണ്ട് ഇപ്പോള് ഒരു നമുക്ക് ആവശ്യമായ പഠനവിഭവങ്ങള് കൃത്യമായ സമയത്ത് തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പുസ്തകങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി അതിന് അനുബന്ധ വിവരങ്ങള് നേടുന്നതിനുള്ള പുസ്തകങ്ങള് ലൈബ്രറി പുസ്തകങ്ങള് പ്രവർത്തനങ്ങളുടെ വർക്ക് ഷീറ്റുകളാണെങ്കിലും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങള് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് നേരിടുന്ന ഒരു വെല്ലുവിളിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമുക്ക് വിഭവങ്ങളുടെ കുറവ് മൂലമല്ല ഞാൻ നമ്മള് പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആണ് അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷ മലയാളമാണെങ്കിലും ഹിന്ദി പഠിക്കുക ഈ രണ്ട് ലാംഗ്വേജിൻ്റെ കാര്യങ്ങളിലാണ് നമുക്ക് എന്തുചെയ്യുന്നത് ബുദ്ധിമുട്ടുകള് വന്നിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലത്തെ സ്കൂൾ ടെക്സ്റ്റുകളിലുള്ള കാര്യങ്ങള് പഠിച്ചെടുക്കുകയെന്നതിനപ്പുറം അതൊരു ഭാഷയായിട്ട് നമുക്ക് കാണാനോ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടുകയെന്നതിനപ്പുറം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എങ്ങനെ നമുക്ക് ആ ഭാഷ ഉപയോഗിക്കണം എങ്ങനെ മറ്റൊരാളോട് സംസാരിക്കണം എങ്ങനെ നമുക്ക് ഒരാള് സംസാരിക്കുന്നതിന് മറുപടി പറയണം തുടങ്ങിയ കാര്യങ്ങളില് നമുക്ക് വ്യക്തതയില്ലാതെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പോലും പലയാളുകൾക്കും ഇംഗ്ലീഷാണെങ്കിലും ഹിന്ദിയാണെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് നമ്മുടെ മാതൃഭാഷ നമ്മള് ഡെയിലി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫ്ലുവൻറ്റായിട്ട് സംസാരിക്കാനും എഴുതാനുമൊക്കെ സാധിക്കുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ഹിന്ദി പോലെയുള്ള ലാംഗ്വേജുകള് നമ്മള് പഠിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കത് എഴുതാനും വായിക്കാനും അറിയുമെങ്കിലും പിന്നീട് അത് ഉപയോഗിക്കാതെയാകുമ്പോള് പല വാക്കുകളും പല വേർഡ്സുകളും എങ്ങനെ ഉപയോഗിക്കണം അതെങ്ങനെ സംസാരിക്കണം ആളുകളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ നമ്മളത് എഴുതണം എന്നുള്ള കാര്യങ്ങൾ പലയാളുകളും മറന്നുപോകുന്നതായിട്ട് ഇതായിട്ടുണ്ട് ഒരു ഒരു ലാംഗ്വേജ് പുതിയതായിട്ട് നമ്മള് പഠിക്കുമ്പോള് അത് നിരന്തരം ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് സ്കൂളുകളില് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല മാതൃഭാഷ സംസാരിക്കുന്ന സ്കൂളുകളില് മാതൃഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ള ഭാഷകള് ഒരു വിഷയമെന്നതിന് അപ്പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണെങ്കിൽ ഇത് നേരെ തിരിച്ചും സംഭവിക്കുന്നുണ്ട് ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻറ്റായിട്ട് സംസാരിക്കാനും എഴുതാനും പറയാനുമൊക്കെ കഴിയുന്നുണ്ട് അവിടെ അപ്പോൾ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിൻ്റെ ഉപയോഗം കുറയുന്നത് മൂലം മലയാളം നേരാം വണ്ണം എഴുതാനും വായിക്കാനും കഴിയാതെ പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എല്ലാ ഭാഷകളും ഒരുപോലെ കാണാനും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാനും ഒരുപോലെ നമുക്ക് ജീവിതത്തില് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള വിഭവങ്ങളില് നമുക്ക് കൂടുതൽ കൂടുതൽ ലഭ്യമാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് നടക്കുന്നുണ്ടെങ്കിലും അതൊരു റിസൾട്ടിലേക്ക് പൂർണ്ണമായും എത്തുന്നില്ലെന്നുള്ളതാണ് വാസ്തവം